ഒരു നീണ്ട ബൈക്ക് യാത്രയ്ക്കായിട്ട് പോകുന്ന സമയത്ത് ആദ്യം നമുക്ക് നമ്മുടെ ബൈക്കിന്റെ ഒരു മെക്കാനിക്കൽ സൈഡ് ഓക്കേയാണോയെന്ന് നോക്കണം അതായത് ബൈക്കിൽ പെട്രോൾ ഉണ്ടോയെന്നും ബൈക്കിന്റെ ബ്രേക്കിംഗ് സിസ്റ്റവും അതുപോലെ എൻജിന് കുഴപ്പമില്ല അതുപോലെ അതിന്റെ ടയറിന് കുഴപ്പങ്ങളൊന്നും വരില്ലേ അങ്ങനെയുള്ളതൊക്കെയാണ് നമ്മളാദ്യം ശ്രദ്ധിക്കേണ്ടത് ബൈക്ക് എല്ലാതരത്തിലും ഒക്കെയായി കഴിഞ്ഞാൽ പിന്നെ നമ്മള് നമ്മളുടെ ആവശ്യങ്ങളാണ് നോക്കേണ്ടത് നമ്മളുടെ ആവശ്യങ്ങളെന്നു പറയുന്ന സമയത്ത് വളരെ നല്ല രീതിയില് ഉള്ള ഒര് ട്രിപ്പാണ് പ്ലാൻ ചെയ്യുന്നതെങ്കില് നമുക്ക് തീർച്ചയായും ആവശ്യമാകേണ്ട ഒരു ഘടകങ്ങളാണ് ഭക്ഷണവും വസ്ത്രവും എന്നുള്ളത് ഭക്ഷണം നമുക്ക് എന്തായാലും ഒരു മൂന്നോ നാലോ ദിവസത്തേക്കുള്ള ട്രിപ്പാണെങ്കില് അത്രയും ഭക്ഷണം കൊണ്ടുപോകാൻ കഴിയണമെന്നില്ല അപ്പോൾ അതിനാവശ്യമായിട്ടുള്ള കുറച്ചു പച്ചക്കറികള് കരുതി വെക്കുക അല്ലെങ്കില് എവിടെയെങ്കിലും ചെന്ന് നിൽക്കുന്ന സമയത്ത് ഒരു ഗ്യാസൊക്കെ ഉണ്ടെങ്കില് നമുക്ക് തന്നെ പാകം ചെയ്യാവുന്നതേ ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള പച്ചക്കറികള് കരുതി വെയ്ക്കുക അതുപോലെ ബ്രെഡോ ജാമോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കരുതി വെയ്ക്കുക വളരെ ബഡ്ജറ്റ് കുറഞ്ഞ ട്രിപ്പാണെങ്കിൽ അങ്ങനെ കരുതി വെയ്ക്കുക അതുപോലെ തന്നെയാണ് വസ്ത്രത്തിന്റെ കാര്യം വസ്ത്രത്തിന്റെ കാര്യം എന്തായാലും അധിക വസ്ത്രങ്ങള് കൈയില് വയ്ക്കുന്നത് ഉപകാരപ്രദമായിരിക്കും കാരണം എന്തെങ്കിലും മഴയൊക്കെ വന്ന് കഴിഞ്ഞ് കഴിഞ്ഞാല് മുഴുവൻ നനഞ്ഞു കഴിഞ്ഞാല് പിന്നെ വസ്ത്രം മാറ്റാനേ അത് ഉണങ്ങാനും ഒക്കെ പ്രശ്നമാകുന്ന സമയത്ത് അധിക വസ്ത്രങ്ങള് കരുതി വയ്ക്കുന്നത് ഉപകാരപ്രദമായിരിക്കും